വാർത്തകൾ ശ്രദ്ധിക്കുവാൻ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കാരണം നമ്മൾ ഇന്നത്തെ കാലഘട്ടവും ഇന്നത്തെ സാഹചര്യങ്ങളും ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ അറിയുന്നത് വാർത്തകളിലൂടെയാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കെ ആൻ മനസ്സിലാക്കുക എന്നു പറയുന്നത് ഓരോ വ്യക്തിയും സംബന്ധിച്ച് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇന്നത്തെ യുവതലമുറ കൂടുതലും മൊബൈൽ ഫോണിനും അല്ലെങ്കിൽ ഗെയിംസിനൊക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ ഈ പുറമേ നടക്കുന്ന നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സഹജീവികളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഇവരെ കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് വാർത്തകൾ ശ്രദ്ധിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് പത്രങ്ങൾ വായിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് അത് ഇന്ന് വായനാശീലം തീരെ കുറവാണ് അപ്പം മലയാളം പോലും വായിക്കാനായിട്ട് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ അപ്പം അനുദിനം ഉള്ള പത്രങ്ങൾ വായിക്കുന്നത് വഴിയായിട്ട് അവരുടെ ജനറൽ ആയിട്ടുള്ള നോളേജ് വർദ്ധിക്കുന്നതിനോടൊപ്പം ആ ബേസിക്ക് ആയിട്ട് അവരുടെ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ മനസ്സിലാക്കുവാനായിട്ടും അക്ഷരങ്ങൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വാർത്തകൾ വായിക്കുക എന്നു പറയുന്നത് വളരെ വളരെ നഷ് വളരെ നമുക്ക് അറിവ് നൽകുന്നതാണ് നമ്മൾ ഇൻവ ഇൻട്രോവെർട്ട് ആകാതെ അതായത് നമ്മൾ ആ നമ്മൾ ഉള്ളിലേക്ക് വലിയാതെ നമ്മുടെ പുറമേയുള്ള സഹജീവികളിൽ സഹജീവികളുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുവാനും അറിയുവാനും അതുവഴിയായിട്ട് അവരുടെ വിഷമങ്ങളിലേക്ക് അവരുടെ ഒരു സഹാനുഭൂതി വളർത്താൻ നമ്മുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടാകുന്നു എന്നു മനസ്സിലാക്കി സഹജീവികളോട് കരുതലും സ്നേഹവും ഉള്ളവർ ആകുവാനായിട്ട് ഒരുപാട് വാർത്തകളും നമ്മെ സഹായിക്കും എന്ന് വിശ്വസിക്കുകയാണ് പിന്നെ നല്ല രീതിയിൽ വാർത്തകൾ വായിക്കുന്നത് വഴിയായിട്ട് ജനറൽ നോളേജ് ആൾക്കാരുടെ ജനറൽ നോളേജ് വർദ്ധിപ്പിക്കുന്നു വർദ്ധിക്കുന്നു പിന്നെ അവർക്ക് ആ ഒരു കഴിവ് ലഭിക്കുന്നു ജനറലൈസ് ചെയ്യാനായിട്ട് ഒരു കാര്യം ജനറലൈസ് ചെയ്ത് സംസാരിക്കാനായിട്ട് അതുപോലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ എന്തെല്ലാം എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ടൊക്കെ നമ്മൾ പുറമേയുള്ള വാർത്തകൾ വായിക്കുന്നത് സഹായിക്കും കാരണം ഒരാളുടെ അനുഭവങ്ങൾ ഒരാള് ഷെയർ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരാൾക്ക് സംഭവിച്ച ഒരു പതർച്ച അല്ലെങ്കിലൊരു തകർച്ച അല്ലെങ്കിലൊരു ഉയർച്ച ഒക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിയും അപ്പം ഇതൊക്കെ ഇതിൽ നിന്നെല്ലാം നമുക്കും നമ്മുടെ ജീവിതത്തിനും വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയുവാനായിട്ടും ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് വാർത്തകൾ വായിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ലോകത്ത് നടക്കുന്ന ആധുനികമായി ആധുനിക ലോകത്ത് നടക്കുന്ന ഓരോ ദിവസവും ഡെവലപ്മെൻറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ ദിവസോം നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നമ്മുടെ ലോകത്തിലെരുപാട് ഉയർച്ചകളും നന്മകളും ഉണ്ടാകുന്നുണ്ട് ഈ നന്മകളും ഉയർച്ചകളും ഒക്കെ നമുക്കും കൂടെ ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കും കൂടെ ഫലവത്തായ രീതിയിൽ അതിൻ്റെ ഫലം ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അത് ആ അറിയുകയും ചെയ്യണം